ആഹ് നിങ്ങൾക്കൊക്കെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസതല അറിയണം കാരണം ഇങ്ങനെ പണിയെടുക്കുന്നവരൊക്കെ ആൾക്കാർക്ക് പുച്ഛം അപ്പം ഇതൊക്കെ നമ്മളുടെ ഒരു തൊഴിലാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്